ഇപ്പോൾ ജീവിതത്തിൽ എല്ലാവരും വില കൽപ്പിക്കുന്നപോലെ തന്നെയാണ് ഞാനും വില കൽപ്പിക്കുന്നത് കാരണം എന്താ വച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബമാണ് എനിക്ക് വലുത് അപ്പം കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പം കുടുംബമാണ് എനിക്ക് ഏറ്റവും വലുത് ആ അപ്പം അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തും ഉള്ളൂ അപ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഇപ്പം ഇപ്പം അമ്മ അമ്മയൊക്കെ നമ്മളെ പഠിക്കാൻ വിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല നിലയിൽ എത്തിക്കാണണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഭാവിയിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളെ അമ്മേനെയൊക്കെ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ കുടുംബാണിപ്പോൾ കുടുംബം എന്നു പറഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ അമ്മ പിന്നെ ഭാര്യ മക്കൾ ഇങ്ങനെയൊക്കെയാണ് കുടുംബം ഉണ്ടാവുക അപ്പം ആ കുടുംബം എന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലുതാണ് നമ്മൾക്ക് അമ്മയാണ് ഏറ്റവും വലുത് അതു കഴിഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ ഭാര്യ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് വരിക ആ അപ്പോൾ നമ്മൾ അമ്മ അച്ഛൻ അവരൊന്നുമില്ലെങ്കിൽ നമ്മളില്ല അതാണ് മെയിനായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പം നമ്മൾക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം തന്നെയാണ്